ഞാനൊരു ചാർജറൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് അത്ര സ്റ്റാറ്റിസ്ഫൈഡ് അല്ലാ എൻ്റെ ഞാൻ വിചാരിച്ച പോലെ ഒരു പ്രൊഡക്റ്റായിരുന്നില്ല അത് ഫാസ്റ്റ് ചാർജറായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് എടുത്തത് പക്ഷേ ചാർജിങ് ടൈമ് കമ്മിയാണ് അതിൻ്റെ വോൾട്ടേജ് കമ്മിയായോണ്ടായിരിക്കും ടൈമും കമ്മിയായത് പിന്നെ ക്വാളിറ്റി ഇല്ല ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു പ്രൊഡക്റ്റായിരുന്നില്ല അത് ഞാൻ ഉദ്ദേശിച്ചത് ഇതിലും കുറച്ചുംകൂടി ക്വാളിറ്റി ഉണ്ടാവും എന്നാണ് ഇത് ക്വാളിറ്റി ഇല്ലാ പെട്ടന്ന് ചാർ ഹീറ്റാവുന്നുണ്ട് ചാർജറ് അതുപോലെ തന്നെ കേബിളും ലെങ്ത് കമ്മിയാണ് കേബിളിൻ്റെ ചാർജറിൻ്റെ അഡാപ്റ്ററ് പെട്ടന്ന് ഹീറ്റാവുന്നുണ്ട് ഫോൺ മൊത്തം എഫക്റ്റെയ്യുന്നുണ്ട് ഫോണും ചാർജെയ്യുന്ന സമയത്ത് ഫോണും ഹീറ്റാവുന്നുണ്ട് അത് ചാർജറിൻ്റെ ഇഷ്യൂ ആയിരിക്കും അതുകൊണ്ട് എനിക്ക് ഈ ചാർജറ് ഇഷ്ടപ്പെട്ടില്ല അതൊരു ഈ ചാർജറിനെ കുറിച്ച് എനിക്കൊരു നെഗറ്റീവ് ഒപ്പീനിയനാണ് ഉള്ളത് പ്രൊഡക്റ്റ് വളരെ മോശം സാധനമാണ് ഇപ്പോൾ നോർമൽ ഫാസ്റ്റ് ചാർജറൊക്കെ ഇള്ള സമയത്ത് ഈ ചാർജറ് ചാർജാവാൻ തന്നെ നല്ല ടൈമെടുക്കുന്നുണ്ട്